ഒരു പാട്ട് നന്നാവണമെന്നുണ്ടെങ്കില് എത്രത്തോളം നമ്മള് പരിശീലിപ്പിക്കുന്നുവോ അത്രത്തോളം പാട്ട് നന്നാവുകയാണ് ചെയ്യുക ഒരു രണ്ട് ഒരു പാട്ട് നമ്മളെ കയ്യില് കിട്ടിയിട്ടുണ്ടെങ്കില് അത് രണ്ട് മൂന്നു പ്രാവശ്യമൊന്നും പാടിയാല് ശരിയാകില്ല ഒരു അഞ്ചാറ് പ്രാവശ്യം ആ പാട്ടുതന്നെ പാടി പാടി പാടി നമ്മടെ തൊണ്ട ക്ലിയറാവണം അങ്ങനെ പാടിയെങ്കിലേ ശരിയാവുള്ളു പിന്നതുപോലെ പാട്ടിന് നമ്മളെ ശ്വസനം അതുപോലെ തൊണ്ടയ്ക്കും നല്ല പ്രാധാന്യമുണ്ട് ഒച്ച അടഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് പാടാന് കഴിയില്ല പാട്ട് നന്നാവില്ല അതിനിപ്പോള് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നുപറഞ്ഞാല് തണുത്ത ഭക്ഷണങ്ങള് ഐസ്ക്രീം അങ്ങനത്തെ തണുത്ത വെള്ളം ഇങ്ങനത്തതൊന്നും കുടിക്കരുത് അതുപോലെ തണുപ്പത്ത് ഇറങ്ങി നടക്കരുത് മഞ്ഞ് കൊള്ളരുത് ഇതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഒരു പാട്ട് നന്നാവണമെങ്കില് നല്ലവണ്ണം സാധകം ചെയ്യണം പിന്നതുപോലെതന്നെയാണ് പാട്ട് ആദ്യം നല്ലവണ്ണം കേട്ട് മനസ്സിലാക്കണം അപ്പം ഇതിൻ്റെ ഓരോ സംഭവങ്ങളും കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു പാട്ടും നമ്മള് അത് പാടി ഫലിപ്പിക്കണമെങ്കില് അപ്പം അതിന് എന്നാല് നല്ലവണ്ണം പരിശീലനം ആവശ്യമാണ് ഒരു പാട്ടിന് ഏതൊരു പാട്ടിലായാലും അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ച് പാടണമെന്നുണ്ടെങ്കില് നമുക്ക് നല്ല പ്രയാസം തന്നെയാണ് അപ്പോള് അതിലെന്നു പറഞ്ഞാൽ നല്ലവണ്ണം ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാടണമെന്നുണ്ടെങ്കില് പരിശീലനം അത്യാവശ്യമാണ് പിന്നെ ഉച്ചത്തിലുള്ള സംസാരങ്ങള് അത് ഒഴിവാക്കണം ഒരു മിതമായ സൗണ്ടിലാവും പാട്ട് പാടുന്നവര് സംസാരിക്കേണ്ടത് കാരണം തൊണ്ടയ്ക്കിതിന് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഏതൊരു പാട്ട് നമ്മള് വായ കൊണ്ടാണ് പാടണതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തൊണ്ടയ്ക്കാണ് അതിന് ഒര് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അതില് പ്രാധാന്യമുള്ളത്